ആ ഞാൻ യൂട്യൂബിൽ കുറേ യൂട്യൂബ് ചാനലുകൾ ഇത് ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അതായത് നെയ്ത്തിൻ്റെ തുന്നലിലൊക്കെ അതായത് സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെയുള്ള ഞൻ എല്ലാം ലൈക്ക് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂണ്ട് ഞാൻ ചെറിയ രീതിയിൽ അത് പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചു ഞാൻ കൂടുതലായിട്ടും പരീക്ഷിച്ചിട്ടുള്ളത് ഈ ഹൂപ്പുകളാണ് അതായത് നമ്മുടെ കൈ കൈ തുന്നലുകൾ തുന്നില്ലെ എംബ്രോയിഡറിയൊക്കെ ആ അപ്പം അത്കൂട്ടാണ് ഞാൻ കൂടുതലും ഫോളോ ചെയ്തിട്ടുള്ളത് അത് ഞാൻ ചെയ്യുകയും ആളുകൾക്ക് ഗിഫറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ ഈ സ്റ്റിച്ചിങ് കട്ടിങ് കട്ടിങ് ചെറിയ എനിക്ക് ഇപ്പം ചുരിദാർ മാത്രം തയ്ക്കാനായിട്ടൊക്കെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തിട്ടുണ്ട്

മെയിൻ ആയിട്ട് സ്റ്റിച്ചിങ്ങിന് ചുരിദാർ കട്ടിങ്ങും അതുപോലെ തന്നെ ഞാൻ ഹൂപ്പ് എംബ്രോയിഡറിയാണ് കൂടുതലായിട്ടും പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്